ഇന്നത്തേക്കാലത്ത് പൂർണ്ണമായിട്ടും മലയാള ഭാഷ സംസാരിക്കുന്നവർ അല്ലെങ്കിൽ സംസാരത്തിനിടയിൽ പൂർണ്ണമായിട്ടും മലയാളം സംസാരിക്കുന്ന ആളുകൾ വളരെ കുറവാണ് കാരണം കുറച്ച് സ്റ്റൈൽന് വേണ്ടീട്ടോ അല്ലേ കുറച്ച് ഗമ കാണിക്കാൻ വേണ്ടീട്ടോ ഇങ്ക്ലീഷ് പദങ്ങൾ ഇടയ്ക്ക് കയറ്റി സംസാരിക്കുന്ന ആളുകളാണ് കൂടുതലും ഉള്ളത് പക്ഷേ ഇത് സ്വാഭാവികമായിട്ടും അങ്ങനെ സംസാരിക്കുന്നവർ ഉണ്ട് എന്നിരുന്നാലും മലയാളം പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ വേണ്ടി ഇന്നത്തെ സാഹചര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പൂർണ്ണമായിട്ടും പുർണ്ണമായിട്ടും ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അത് പുർണ്ണമായിട്ടും മലയാളം തന്നെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ് കാരണം ഇപ്പം ഇന്ന് എന്നാ കറി എന്ന് ചോദിക്കുന്നുണ്ടേൽ പോലും കറീന്ന് പറയുന്നൊരിങ്ക്ലീഷ് വാക്കാണ് ഇന്നെന്താണ് ചോറിന് കൂട്ടാൻ എന്ന് ഇപ്പം എന്താ പഴയ മനുഷ്യർ വല്ലാം ചോദിച്ചാൽ അല്ലാതെ ഇന്നത്തെ കാലത്ത് എന്താ ഇന്ന് കറി ഉണ്ടാക്കുന്നത് എന്നക്കെ അല്ലാതെ ആ രീതിയിൽ ഇപ്പം നമ്മൾ പറയുന്ന ഓരോ ഓരോ സെൻറ്റൻസ്സേറ്റോം ചെറിയ സെൻറ്റൻസ്സിപ്പോലും എന്താ ഇപ്പം ഇങ്ക്ലീഷ് വാക്കുകൾ കൂടുതൽ കടന്ന് വരുന്നുണ്ട് മലയാളം പരിപൂർണ്ണമായിട്ടും മലയാളം ഉപയോഗിക്കുന്ന ആളുകൾ വളരെ വളരെ വളരെ വളരെ വളരെ വളരെ കുറവാണ് ഇപ്പം നമ്മൾ ഇപ്പം ഇപ്പം ആണെങ്കിലും ചില ചില സാഹചര്യത്തിൽ ഇപ്പം മലയാള ഭാഷ ദിനം ആചരിക്കുന്ന സമയത്തെക്കെ പല പ്രോഗ്രാം അല്ലെങ്കിൽ ഗേയ്മുകൾ സംഘടിപ്പച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ എന്തേലുവൊരു ക്വസ്റ്റ്യൻ ചോദിക്കും അതിനിടയ്ക്ക് എന്താ മലയാളം മാത്രമേ സംസാരിക്കാൻ പാടുള്ളു ഇങ്ക്ലീഷ് പറഞ്ഞാൽ ഔട്ട് ആ രീതിയിൽ മലയാളം തന്നെ സംസാരിച്ച് അങ്ങ്വരെ പോവാ അല്ലെങ്കിൽ ആ ടാസ്ക്ക് കമ്പ്ലീറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ട് ഉള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം നീ ഏത് സ്കൂൾളാണ് പഠിക്കുന്നത് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാത്തന്നെ സ്കൂളെന്ന് പറയുന്നത് ഒരു ഇങ്ക്ലീശ് പദമാണ് നീ നീ ഏത് പള്ളിക്കൂടത്തിലാണ് പഠിക്കുന്നത് ഞാൻ ഇപ്പം സെൻറ്മേരീസ് ഹയർ സെക്കൻറ്റ്രി സ്കൂൾ അങ്ങനെ ഒക്കെ പറയുക ആണെങ്കിൽ സെൻറ്റ്മേരീസ്സ് സ്കൂള് അതൊക്കെ ഇഷ്ടം പോലിങ്ക്ലീഷ് പദം വന്ന് കഴിഞ്ഞപ്പോൾ ഒരു സ്കൂളിൻറ്റെ പേരൊക്കെ ആണെങ്കിൽ നമുക്കിങ്ക്ലീഷിലല്ലാതെ മലയാളത്തിൽ പറയാന്നൊള്ളത് ഭയങ്കര പാടാണ് കാരണം അത് നമ്മൾ യൂസ്ഡായി നമ്മൾ ആ രീതിയിൽ ശീലിച്ച് വന്നത് കൊണ്ട് തന്നെ നമ്മക്ക് ആ രീതിയിൽ ഇങ്ക്ലീഷ് ഇങ്ക്ലീഷൊഴിവാക്കി മലയാളം തന്നെ സംസാരിക്കാം എന്ന് പറയുന്നത് വളരെ വളരെ പാടായിട്ടുള്ള വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് എനിക്ക് എനിക്ക് അങ്ങനെ ആണ് തോന്നീട്ടുള്ളു ഇപ്പം നമ്മൾ ഒരു സിങ്കിൾ സെൻറ്റെൻസുപയോഗിക്കുമ്പം പോലും എന്താ നമ്മൾ അതിനകത്ത് ഇംഗ്ലീഷുപയോഗിക്കുന്നുണ്ട് ഇപ്പം ചെറിയ കുട്ടികൾ സംസാരിപ്പിച്ചോണ്ടിരിക്കുന്ന സമയത്താണേപ്പോൽ സംസാരിക്കാൻ പഠിപ്പിക്കുന്ന സമയത്ത് ആണെങ്കിൽ പോലും എന്താ നമ്മൾ ഇങ്ക്ലീഷ് പദങ്ങൾ കുട്ടികൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ ഇങ്ക്ലീഷുങ്കൂടുൾപ്പെട്ത്തി സംസാരിക്കാനാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് അതൊന്ന് അതൊക്കെ അതൊക്കെ എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് മലയാളം ആയിട്ടുള്ള പരിചയം തന്നെ ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞ് പോവാണ് അപ്പം ഇപ്പം മലയാളം തന്നെ സംസാരിക്കണം എങ്കിൽ അതിന് അനുസരിച്ചുള്ള ട്രേയ്നിങ്ങെല്ലാ ഭാഗത്തും കൊടുക്കണം എല്ലാ ഭാഗം എല്ലാ എല്ലാ മേഖലയിലും അത് കൊടുക്കണം സ്കൂള്കളിലുൾപ്പെടെ കൊടുക്കണം എന്നുള്ളതാണ് പക്ഷേ മലയാളം തന്നെ സംസാരിക്കുക എന്നുള്ളത് മലയാളം പദം തന്നെ സംസാരിക്കുക എന്നുള്ള വളരെ ടാസ്ക്കൊള്ള ഒരു കാര്യമാണ് നമ്മൾ അത് അത് അല്ല അത് നമ്മൾ ശരിക്കും വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് മലയാളം അല്ലാതെ വെല്ലുവിളിയായിട്ടൊന്നുമില്ല ഇപ്പം നമ്മൾ ഇപ്പം സിനിമ ഒരു സിനിമ കാണുവാണെങ്കിലും ഒരു സിനിമക്കകത്തും കമ്പ്ലീറ്റായ്ട്ടും സോറി പൂർണ്ണമായിട്ടും മലയാളം ഉപയോഗിക്കുന്ന ഒരു മലയാളം അത്രയും പഴയ സിനിമകൾ ഒക്കെ ആണെങ്കിൽ മാത്രമേ മലയാളം മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ഉള്ളു ഇപ്പോഴത്തെ സിനിമകളിലെല്ലാം ഇങ്ക്ലീഷ് പദങ്ങളോട് കൂടി ഓരോ ഡയ്ലോഗിലും ഇങ്ക്ലീഷ് പദങ്ങളോട് കൂടുതൽ എന്നെ ചേർന്ന് വരുന്ന രീതീലാണ് ഡയലോഗ്കൾള് പോലും ക്രമീകരിച്ചിട്ടുള്ളത് അപ്പം പിന്നെ വല് അതൊരു അത് അതൊക്കെ ഒരു വെല്ലു വിളി തന്നെയാണ് കാരണം നമ്മൾ സമൂഹത്തിൽ ഉള്ളവർ മലയാളം നല്ല രീതി തന്നെ ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്കും ആ രീതിയിൽ ഉള്ള മാറ്റങ്ങൾ വരുകയുള്ളു മലയാളം തന്നെ സംസാരിക്കാൻ ഉള്ള ഒരു ആ രീതിയിൽ ഉള്ള മാറ്റങ്ങൾ ഉണ്ടാവുള്ളു